കയ്യോ കാലോ അങ്ങനെ ഒടിയുവാണന്നൊരിൽ ആദ്യം പോയി എക്സ് റേ എടുത്ത് ആ രോഗത്ത് എന്താ പറ്റിയത് എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പ് വരുത്തണം ഉറപ്പ് വരുത്തി കഴിഞ്ഞ് എങ്ങോട്ടാണ് തിരിയേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കമ്പം എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങൾടെ അടുത്തുണ്ട് അവിടെ പോവാണന്നൊരിയില് ഇത് പിടിച്ചിടേണ്ടതാണെങ്കിൽ പിടിച്ചിടും ഇടും മരുന്ന് വെച്ച് കെട്ടേണ്ടതാണെങ്കിൽ മരുന്ന് വെച്ച് കെട്ടി അത് ഫലവത്തായി ഓപ്പറേഷനൊന്നുമില്ലാതെ ഫലവത്താക്കി തീർക്കാം അല്ല ഇനി ആശുപത്രി വഴി പോവുകയാണെന്ന് ഒരുവില് ആശുപത്രികളിൽ ചെന്നാൽ അതവർ എക്സ് റേ എടുത്ത് കഴി നോക്കിയിട്ട് വിവരം മനസ്സിലാക്കി കഴിഞ്ഞിച്ചിട്ട് പ്ലാസ്റ്റിടണാ പ്ലാസ്റ്ററിടും പിന്നെ സ് കമ്പിയിട്ട് സ്ക്രൂ ചെയ്യേണ്ട ഒരു ചികിത്സയുണ്ട് ആ ചികിത്സ ചെയ്യും അപ്പോൾ ഒരു വർഷം കഴിഞ്ഞേ ആ സ്ക്രൂ എടുക്കാൻ പറ്റത്തൊള്ളൂ അങ്ങനെയൊക്കെ ഏയ് കമ്പത്തിന് പോവുകാണെങ്കിൽ അവിടെ വലിയ ചികിത്സാ ചിലവുകൾ വരികയുമില്ല അവർക്കത് അവരത് നല്ല രീതിയിൽ ശരിയായിട്ട് മുക്തി നേടുന്നുണ്ട് ഇപ്പം ജനങ്ങളൊക്കെ അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ ഇതൊത്തിരി നടക്കുന്ന ഒരു കാര്യമാണ് അതിൽ കാര്യവുമില്ല ഫലവത്തായ ഒരു സംഭവം കമ്പത്തിന് പോവുക എന്നുള്ളതാണെന്ന് ഇപ്പം കണ്ടു വരുന്നത്